ഇപ്പോൾ കാലാവസ്ഥയിലെല്ലാം വളരെ വ്യത്യാസമാണ് പണ്ടൊക്കെ ഒരു കറക്റ്റ് ടൈമിൽ ഇന്ന് കാലാവസ്ഥയായിരുന്നു എക്സാമ്പിൾ പറയാണെങ്കിൽ ജൂലൈ മാസം തന്നെയായിരുന്നു നമ്മുടെ മഴക്കാല അവസ്ഥ എങ്കിൽ പിന്നെ മാർച്ച് മാസം ചൂട് ആ ഒരു ലെവൽ നമുക്ക് കറക്റ്റ് കണക്കു കൂട്ടലുണ്ടായിരുന്നു ഇപ്പോൾ പ്രകൃതിയുടെ ആ ഒരു മാറ്റം കൊണ്ടാവണം ഒന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ വയ്യാത്തൊരു സാഹചര്യമാണ് കാലാവസ്ഥയിലൊക്കെ വളരെ വ്യത്യാസമാണ് മരങ്ങളുടെയൊക്കെ കുറവ് കാരണമായിരിക്കാം ഭയങ്കര അതികഠിനമായ ചൂടാണ് നമുക്ക് ഇവിടെ ചൂടാണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ തണുപ്പായിരിക്കും തണുപ്പായിരുന്നു വിവിധ രാജ്യങ്ങളിൽ പല കാലാവസ്ഥ ആയിരിക്കും ആ ഒരു ഏരിയയും അവരുടെ സാഹചര്യങ്ങളും വച്ചായിരിക്കും അപ്പം കാലാവസ്ഥയിലൊക്കെ വളരേ വ്യത്യാസം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചൂട് കാലാവസ്ഥയാണ് കൂടുതൽ നിൽക്കുന്നത് അതു കണക്ക് തന്നെ മഴക്കാലാവസ്ഥയാണെങ്കിൽൽ മൊത്തം അങ്ങ് പ്രളയത്തിലേക്കും ഉരുൾ പൊട്ടലിലേക്കുമൊക്കെ അങ്ങ് കഴിഞ്ഞു പോവുകയാണ് ഇപ്പം കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ തന്നെ മനസ്സിന് ഒരു ഭയം തന്നെയാണ് ഉണ്ടാകുന്നത്

കാലാവസ്ഥ ഇപ്പോൾ നാം തമിഴ്നാട് നല്ല ചൂടാണെങ്കിൽ പിന്നെ ഡൽഹി ആ സ്ഥലത്തൊക്കെ നല്ല തണുപ്പായിരിക്കും പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു മഴക്കാലമാണ് നമ്മുടെ കേരളത്തിന് ഇപ്പം മഴക്കാലമാണ് പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ചൂടു കാലമാണ് അങ്ങനെ പലയിടത്തും കാലാവസ്ഥകൾ വ്യത്യാസം വന്നപ്പോൾ വ്യത്യാസമാണ് എങ്കിലും കാലാവസ്ഥ വ്യത്യാസം ഇപ്പോൾ മനുഷ്യന് അത് അതിജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് മഴ മഴയാണെങ്കിൽ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ രോഗങ്ങൾ പിന്നെ പ്രളയം പിന്നെ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വേനൽ വരുമ്പത്തേക്ക് ആർക്കും പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥ ചൂടിൻ്റെ കാഠിന്യം കൂടിയതിനാൽ ആർക്കും പുറത്തിറങ്ങാൻ ഒക്കത്തില്ല സൂര്യാഘാതം പോലെയുള്ള അസുഖം സൂര്യഘാതമൊക്കെ സംഭവിക്കുന്നു പിന്നെ വല്ല വിളർച്ച അസുഖങ്ങൾ എല്ലാം സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം കാലാവസ്ഥയിലൊക്കെ പണ്ടത്തെ കാലത്തെ പോലെയല്ല എല്ലാം മാറ്റമായിരിക്കുന്നു

കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഒരു നല്ല ഒരു ആശ്വാസം കണ്ടെത്താൻ ഒക്കും മരങ്ങളൊക്കെ വച്ചു പിടിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇതിനെല്ലാം അതിജീവിച്ചു പോവാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാലാവസ്ഥയിൽ നമ്മൾ പണ്ട് പോലെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പണ്ടത്തെ കാലത്തെ ഒരു രീതിയല്ല ഇപ്പോൾ എല്ലാം മാറി സൂര്യൻ്റെ ചൂടിൻ്റെ ആഘാതം കൂടിക്കൊണ്ടിരിക്കുക ആണ് പിന്നെ നമ്മളെ കാടുകളും മരങ്ങളും എല്ലാം വെട്ടി തെളിച്ചത് കൊണ്ട് നമ്മൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൈകാര്യം നമ്മൾ ചെയതെങ്കിൽ മാത്രമേ ഇനി അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാൻ പോലും പറ്റു ഈ കാലാവസ്ഥാ നമ്മളെ മനുഷ്യനെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രളയം വരുമ്പോഴും ഓരോ ഉരുൾ പൊട്ടൽ വരുമ്പോഴും ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് കൺമുമ്പിൽ മരിച്ചു വീഴുന്നത് അതിനെയൊക്കെ പ്രതി പ്രതികരിക്കുക എന്ന് വച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളെ ഈ തലമുറ അതിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് തരണം ചെയ്യാൻ പറ്റു എന്ന് എനിക്ക് തോന്നുന്നു